നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ ഒപ്പമുള്ളവർ കൂടെയും നിൽക്കേണ്ടതും അതേപോലെത്തന്നെ നമ്മുടെ ഒപ്പം ഒത്ത് പോകേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ നമ്മുടെ ജോലി സ്ഥലത്ത് ഒരാൾ ഒത്ത് പോയില്ല എന്നുണ്ടെങ്കിൽ വളരെ അധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ ഒപ്പമുള്ള സഹപ്രവർത്തകർ ഒത്തു പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾക്ക് തന്ന ജോലി തന്നെ ചെയ്യാൻ കഴിയില്ല അതേപോലെത്തന്നെ ഒരു ടീമായി പ്രവർത്തിക്കുമ്പോൾ ഈ ഒത്തൊരുമ ഇല്ലാതെ ആവുമ്പോൾ ആ ഒരു ജോലി നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല അതേപോലെത്തന്നെ ആ കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടിയും വരും ചില സന്ദർഭങ്ങളിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ ഒഴിവാക്കി മുന്നോട്ട് തന്നെ പോവണം അല്ലെങ്കിൽ നമ്മൾക്ക് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയില്ല ജോലി പൂർത്തിയാക്കേണ്ടത് നമ്മുടെ ആവശ്യമായതുകൊണ്ടും ഈ ജോലിയുടെ നിലനിൽപ്പിൻ്റെ ആവശ്യം നമുക്ക് തന്നെ ആയതുകൊണ്ടും പല സന്ദർഭങ്ങളിലും നമ്മൾ ഇതിനെ അതിക്രമിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം ഓരോ പ്രശ്നങ്ങളും നമ്മൾ കടന്ന് വന്ന് വിജയത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോവേണ്ടത് ചില സമയങ്ങളിൽ ഓരോ പ്രശ്നം ഉണ്ടാവുമ്പോഴും നമ്മൾ അത് ഒഴിവാക്കി അത് കാര്യമാക്കാതെ അതിനുള്ള പരിഹാരം കണ്ടെത്തുകയും കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ ആവുള്ളു